കേരളത്തിൽ നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ ക്രിസ്ത്യൻ മതത്തിലും ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് മതമില്ലാത്തവരുമുണ്ട് പിന്നെ ബുദ്ധമതം ഉള്ളവരുണ്ട് ബുദ്ധമതം വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് ബുദ്ധമതം ബാക്കി എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആണ് ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികളിൽത്തന്നെ വ്യത്യസ്ത രീതിയിൽ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളിലും അങ്ങനെ തന്നെയുണ്ട് ഹിന്ദുക്കളും അങ്ങനെത്തന്നെ ജാതിയിൽ ജാതിയുടെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കീഴ്ജാതി മേൽജാതി അങ്ങനെ ഇതാക്കിയാലും വിശ്വാസമെന്ന് പറയുന്നത് ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും ഹിന്ദുമതത്തിലും ആണ്

ഓ അത് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആചരിക്കുന്ന അവർ പരിശീലിക്കപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഹിന്ദുക്കൾക്കാണെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ വീടുകളിൽ നിന്നും അവരുടെ അപ്പൂപ്പൻ അമ്മൂമ്മൻമാരിൽ നിന്നും ആണ് അവർ പിന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു എടുക്കുന്നത് എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ളത് അവരുടെ പിന്നെ അവർക്കിങ്ങനെ നമുക്ക് അവരുടെ ചരിത്രങ്ങളും കാര്യങ്ങളും ദൈവത്തിനെക്കുറിച്ചൊക്കെ അവർ പഠിക്കുന്നത് വീട്ടുകളിൽ നിന്ന് തന്നെയാണ് അതിന് അവർ പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തു പോയി പഠിക്കുന്നൊന്നുമില്ല അതേപോലെതന്നെ ഇസ്ലാമിക്കിൽ പള്ളിയിൽ പോയിട്ട് മക്കളെ മദ്രസ്സയിൽ ചേർത്ത് മക്കളെ പിന്നെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെത്തന്നെ ക്രിസ്ത്യൻ കുട്ടികളെയും പിന്നെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കും ഞാറാഴ്ച്ചകളിലാണ് അവർക്ക് പഠിപ്പിക്കുന്നത് ഇസ്ലാമിക് കുട്ടികൾക്ക് എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പോകുന്നവരുണ്ട് രാവിലേയും പിന്നെ മദ്രസ്സെ പോവുന്ന കുട്ടികളുണ്ട്